ഹലോ ആ ഗ്യാസ് ഡെലിവറി ബോയല്ലേ ഗ്യാസിന് ഭയങ്കര വിലയാണല്ലോ നമുക്ക് ഇവിടെ ഗ്യാസ് ഉപയോഗിക്കാൻ രണ്ട് മാസത്തെ ഗ്യാസെ കിട്ടുന്നുള്ളു എന്നാലും ഗ്യാസിനും ഭയങ്കര വിലയാണല്ലോ ആ അതെ എന്നാലും നിങ്ങൾക്ക് ഒന്ന് നിങ്ങളുടെ ഗ്യാസ് ഓണർമാരോടൊന്ന് സംസാരിച്ചൂടെ എന്നാലും എൻ എന്നാലും ഗ്യാസിനെന്തൊരു വിലയാണ് എന്നാൽ ഗവൺമെൻറ്റ് ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾക്ക് ജീവിക്കണ്ടേ ഗ്യാസ് എല്ലാവർക്കും അത്യാവശ്യമാണ് എന്നാലും ഇത്തിരിയൊക്കെ കുറക്കാമായിരുന്നു നിങ്ങൾ ഈ ഗ്യാസിൻ്റെ ഡെലിവറി ബോയ് ആയത് കൊണ്ട് നിങ്ങളുടെ സ്ഥാപനത്തിന്ന് വരുന്നത് കൊണ്ടൊരു ഡിസ്ക്കൗണ്ടൊക്കെ നമുക്ക് തരാമായിരുന്നു ആം എന്നാലും എന്നാലും ഇനി ഇനിയും ശ്രദ്ധിക്കാട്ടോ ഓക്കെ ഓക്കെ താങ്ക് യൂ ശരി